നമ്മൾ സാധാരണ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വരും എന്നിട്ട് കോഴിക്കോട് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ ചന്തയിലോട്ടാണ് കൊണ്ടുപോവുന്നത് ചന്ത വലിയ ചന്തയെന്ന് പറയുന്നത് ചാലിയൻ ചന്തയുണ്ട് പിന്നെ നടക്കാവ് ചന്തയാണ് അത് കോഴിക്കോടിൽത്തന്നെ വലിയൊരു ചന്തയാണ് മാർക്കറ്റാണത് മീൻ വാങ്ങുന്നത് അവിടെ വന്നിട്ട് ഈ പിന്നെ എല്ലാ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ആൾക്കാർ മീൻ വാങ്ങിയിട്ട് പോവുന്നുണ്ട് അപ്പം അവിടെ ചെല്ലുന്നു അവരിങ്ങനെ ലേലം വിളിക്കണ പോലെ ഇത്ര ഇത് ഇത്ര ഇത്രയെന്ന് പറഞ്ഞ് ലേലം വിളിച്ച് കഴിഞ്ഞ് അവരൊരു തുക നിശ്ചയിച്ച് അത് വാങ്ങിച്ച് അങ്ങനെയാണ് ആ ചന്തയിൽ നിന്ന് മത്സ്യച്ചന്തയിൽ നിന്ന് ഓരോരുത്തർ മീൻ വാങ്ങി കൊണ്ടുപോവുന്നത് സമീപസ്ഥലത്തേയ്ക്കുള്ള ചെറിയ ചെറിയ ഈ ഷോപ്പിലേയ്ക്കും പിന്നെ അല്ലാതെ നമ്മളെ ഗുഡ്സിലും ഇതിലൊക്കെയായിട്ട് മീൻ കൊണ്ടുപോവുന്നത് അങ്ങനെയൊക്കെയാണ് അവർ വാങ്ങിച്ചിട്ട് പോകുന്നത് പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഡയറക്ടായിട്ടും അവിടെ മീൻ വച്ചവിടെ ഇരിക്കുന്നുണ്ടാവും ഡയറക്ടായിട്ടും നമുക്കവിടെനിന്ന് മീൻ വാങ്ങാം